സാങ്കേതിക വിദ്യയുടെ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ടിക്കറ്റെടുക്കാനാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ബുക്ക് ചെയ്യാനാണെങ്കിലും ബാങ്കിങ്ങ് അതുപോലെ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ നമ്മുടെ താൽപ്പര്യം ഉള്ള സാധനങ്ങൾ നേരത്തേത്തന്നെ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ പൈസ കൊണ്ടുപോകാതെ ഗൂഗിൾ പേ ചെയ്യാനും ഒക്കെയുള്ള വലിയ എപ്പോഴും പൈസ കയ്യിൽ കൊണ്ടുനടക്കാതെ ആവശ്യാനുസരണം അത് അവിടുത്തേക്ക് അയച്ചുകൊടുക്കാനൊക്കെയുള്ളൊരു സംവിധാനം ഇപ്പോൾ വന്നത് വലിയൊരു സാങ്കേതികവിദ്യയുടെ പുരോഗതിയായിട്ടുതന്നെയാണ് കാണുന്നത്